ഹലോ കോച്ച് ആ ഇത്തവണത്തെ മാച്ച് നമ്മൾ തന്നെ വിൻ ചെയ്യുവല്ലോ അല്ലേ ആ അപ്പോൾ പരിശീലനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു

അല്ല റ്റ ടൈം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പരമാവധി കുട്ടികളെ പരിശീലിപ്പിക്കാൻ സാധിക്കത്തില്ലേ അത് അത് കോ അത് കോച്ചല്ലേ പറയണ്ടത് ഇത്തരം മടി കാണിക്കുവാണെങ്കിൽ നമ്മളെങ്ങനെ വിൻ ചെയ്യും ആ ഓക്കെ പിന്നെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊന്ന് എനിക്ക് സെൻറ്റ് ചെയ്യണം ആ പിന്നെ അവരുടെ പോകുന്ന കാര്യങ്ങളും അതൊക്കെയാകുമ്പോൾ എല്ലാം അയച്ചിട്ടുണ്ട് അതൊക്കെയൊന്ന് നോക്കിയിട്ട് ഓക്കെയാണെങ്കിൽ പറയണം ആ ഓക്കെ കോച്ച് ഫിസിക്കലി ഡൗൺ ആയിട്ടുള്ളവരെ എന്തിനാണ് കൊണ്ടുപോകുന്നത് അതിനെ പറ്റി ആ ഉറപ്പാണെങ്കിൽ കുഴപ്പമില്ല ആ ഓക്കെ ആ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് സെൻറ്റ് ചെയ്യ് ആ ഓക്കെ ഓക്കെ